ഇത് മറ്റേ റെസ്റ്റോറൻറിലെ കുക്ക് അല്ലായിരുന്നോ ആ ഞാനേ പിന്നെ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ബ്രേക്ഫാസ്റ്റ് എന്തായിരുന്നു എന്നറിയാനാണ് ഞാൻ ബാംഗ്ലൂർ ആണ് അപ്പം പിന്നെ ഇവിടേക്ക് രണ്ടു മൂന്നു ദിവസത്തേക്ക് വരുന്നുണ്ട് അപ്പം അവിടുത്തെ ട്രഡീഷണൽ ആയാലും കുഴപ്പമില്ല എന്തായാലും ഫേമസ് ആയിട്ടുള്ള ബ്രേക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ഓക്കെ മറ്റേ റൈസ് വെച്ചിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതായത് അപ്പം ചോറല്ല മറ്റേ ഈ അപ്പം പിന്നെ നൂൽപ്പുട്ട് അങ്ങനെയൊക്കെ ഉള്ളത്

ഈ പിന്നെ കള്ളപ്പം വെള്ളയപ്പം ഒക്കെ കിട്ടുവോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഓക്കെ അതിനെന്താണ് അതെ അപ്പോൾ പുട്ടിൻ്റെ കൂടെയോ ഈ നോൺ വെജ് ആയിട്ട് മുട്ടയല്ലാതെ വേറെ എന്തെങ്കിലും ഓക്കെ ഓക്കെ ഓക്കെ അത് അത് വെജിലല്ലേ വരുന്നതല്ലേ അത് വെജിൽ വരുന്നത് ഓക്കെ നോൺ വെജ് നോൺ വെജ് ആയിട്ടുള്ളതാണ് എനിക്ക് വേണ്ടത് പക്ഷേ മുട്ട ഓ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം നമ്മളവിടെ വന്നിട്ട് നിങ്ങളോട് ഇന്ന സാധനമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളപ്പം തന്നെ കുക്ക് ചെയ്തു തരുമോ ഓക്കെ ഓക്കെ ഓക്കെ ഞങ്ങൾ പിന്നെ ഈയടുത്ത് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പം ആ ട്രഡീഷണൽ ആയിട്ട് ട്രഡിഷണൽ ട്രഡിഷണൽ കുറച്ച് ഫുഡ് കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം അതുകൊണ്ടാണ് വിളിച്ചു ചോദിച്ചത് അപ്പം ഞങ്ങളൊരു കാര്യം ചെയ്യാം വരുമ്പം വരുന്ന വരുന്ന ഒരു ദിവസം മുമ്പ് വിളിച്ചു പറയാം ഏ അപ്പം ഇല്ലില്ല ഇത് പിന്നെ ട്രഡീഷണൽ ഫുഡിൻ്റെ കാര്യം മാത്രം ട്രഡീഷണൽ ആയിരിക്കണം കാരണം ഇവിടുത്തെ ഫുഡും അവിടുത്തെ ഫുഡും വേരിയേഷൻ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് കേരള ഫുഡ് ആണ് വേണ്ടത് ഓക്കെ നി കേരള ഫുഡ് മതി ഓക്കെ ഞാൻ എന്തായാലും വിളിക്കാം കേട്ടോ ഏ ഞങ്ങൾ ഞാൻ ഒരു വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ എനിക്ക് ഒന്ന് ഇട്ടുതരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ സെലക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചുതന്നാൽ മതിയല്ലോ ഓക്കെ താങ്ക് യൂ